ഹലോ ഇത് ഫാമിലി ഹോസ്പിറ്റൽ അല്ലേ അക്ഷയ് ഡോക്ടർ ആണോ അത് എനിക്ക് രണ്ട് മൂന്ന് ദിവസമായി പനി ആയിരുന്നു അപ്പം അത് ആ രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് എന്തോന്നാ ഇല്ല ഇല്ല ചെയ്തിട്ടില്ല

ആവി പിടിച്ചായിരുന്നു ആ തുടക്കത്തിൽ ആ ഇത് രണ്ട് മൂന്ന് ദിവസമായി ആ ചുമ ഉണ്ട് ചെറുതായിട്ട് ആ ജലദോഷം ഒക്കെ ഉണ്ട് ആ ആ ആ ഓക്കെ ആ ഓക്കെ

ആ ഓക്കെ ആ കഫക്കെട്ട് ഒക്കെ ഉണ്ട് പിന്നെ തലവേദന ഒക്കെ ഉണ്ട് നന്നായിട്ട്

ആ ഓക്കെ ആ ആ ആ എനിക്ക് ഇപ്പോൾ ഒരു പതിനെട്ട് ആ ഓക്കെ ആ ഓക്കെ ആ ആ നോക്കാം